ആ ഹലോ ആ ഓ എന്നാ ഒണ്ട് ഇങ്ങനെയെക്കെ പോണു ക്ലാസ്സൊക്കെയായിട്ട് ആ ഇന്നൽത്തെ എന്നാ പൊളിയാരുന്നില്ലേ ഓ അമ്മ അ ആ അത് ശെരിയാ എന്നാക്കെയാ കെടന്ന് കാണിച്ച് കൂട്ടിയെ വീഴുമ്പൊ കെടന്നത് കൈ കൊണ്ടിട്ടാ

അതെ എന്തെക്കെയാണോ നടക്കുന്നെ ആ ഇനി അട്ത്ത കളി നോക്കാം അതെ അത് ശെരിയാ അന്നാലും പൊട്ടീന്നോർക്കുമ്പൊ ഒര് വെഷമം

ആ ശെരിയാ ആ അടുത്ത പ്രാശ്യം നോക്കാം അ ഒ പിന്നേ എന്നാരിന്നല്ലേ കളി ഓ എനിക്ക് രോമാഞ്ചം വന്ന് ആതെ ആ ഹെഡ്ഡക്കെ എന്നായിന്നു

അതെ അങ്ങനെ അടിച്ചല്ലോ എന്തായാലും ഈ കപ്പ് ആ പിന്നെ അത് ശെരിയാ ആ അയ് ശെരിയാ ആ എന്നായെക്കെയാരുന്നു കെടന്ന് കാണിക്കണെ ആ ആ ആ ഇനി അട്ത്ത ആഴ്ച്ചത്തെ കാര്യവാ ജയിക്കുവോ എന്തോ എ നീ ആര ടീമാ ഏ ആ അത് ശെരി അർജൻറ്റീന അട്ത്ത പ്രാവശ്യം ബ്രസീലെങ്ങാനം കൊണ്ടോയാലോ ഞങ്ങടെ നെയ്മറണ്ണനിങ്ങെറങ്ങും അപ്പം കാണാം വീണാലും അതൊന്നും പണ്ടേയണ്ടില്ല വീണാലും പുള്ളിയെക്കെ കണ്ടോ അട്ത്ത അട്ത്ത പ്രാവശ്യം കാണിച്ച് തെരാം

ആ നോക്കാം നമ്മക്ക് ബെറ്റൊണ്ടോ ആ ആ എത്രേലുവെക്കെ ആയിക്കോട്ടെ അട്ത്ത വർഷം ഞങ്ങള് പിടിക്കിന്നൊണ്ട് അ ഇപ്പ ഇപ്പ ഇങ്ങള് ചക്ക വീണു മുയല് ചത്തു ജയിച്ചു അത്രയല്ലെ ഒള്ളൂ ആതാ അത് പിന്നെ അട്ത്ത പ്രാവശ്യം നിങ്ങ കാണിച്ചെരാ ആ ഹതൊക്കെ പോട്ടെ നീ എപ്പളാ കളിക്കാൻ എറങ്ങുന്നെ ഇന്ന് ഇന്നൊണ്ടോ

ആണല്ലേ ആ ആ ആ ഇന്നൽത്തെ കളിയൊക്കെ നല്ലയാരുന്നു അമ്മാർടെ കൂടെ

ഓ ആയിക്കോട്ടെ കാണാം നമക്ക് ആ അ ആ ആ എന്നാ ശെരി പിന്നെ കാണാവെന്നാ ആ ആ ശെരിയെന്ന ബൈ